എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നു പറയുമ്പോൾ ബിരിയാണിയാണ് ബിരിയാണി ഞാനിടയ്ക്കൊക്കെ ഉണ്ടാക്കും അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഭക്ഷണം പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴും പിന്നെ എൻ്റെ മകൾ വരുമ്പോഴും അങ്ങനെ ഓരോ തരത്തിലും ബിരിയാണി ഉണ്ടാക്കും പിന്നെ നെയ്ച്ചോറും ചിക്കൻക്കറിയുണ്ടാക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നേ പച്ചക്കറിയെന്നു പറയുമ്പോൾ അവിയലെന്നു അവിയൽ ഇഷ്ടമാണ് അവിയലും എടയ്ക്കുണ്ടാക്കും അങ്ങനെ ഓരോതരം കറികളിങ്ങനെ മുളകാക്കും മുളകും മുളകാക്കറിയെന്ന് പറഞ്ഞൊരു കറിയുണ്ട് അതുണ്ടാക്കും ഇടയ്ക്ക് അതും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇഷ്ടപ്പെട്ട ആഹാരമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അതിലാണ് എല്ലാവരും പിന്നെ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്കും അതു തന്നെയാണ് താൽപര്യം അവർക്കും അതിനോടാണ് ഏറ്റവും വലിയ താൽപ്പര്യമുള്ളത്